ആ ചേച്ചിയുടെ ഫീഡ്ബാക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് അ ആ ചേച്ചി ഇനി എന്തായാലും ഇവിടെ വരണം ചേച്ചി ഇവിടെ വരുമെന്നു ഞാന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നല്ലൊരു ഫീഡ്ബാക്ക് അറിയിച്ചതിനു നന്ദിയുണ്ട് ആ ചേച്ചി ആറു മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ചേച്ചിക്ക് ഇഷ്ടമുള്ള രീതിയില് ചേച്ചിയുടെ മുറി മുടി എങ്ങനെയാണെന്നുവച്ചാല് ഞങ്ങൾ ചെയ്തു തരും ചേച്ചിയുടെ ഇഷ്ടത്തിനുള്ള ഹെയർ സ്റ്റൈലിങ് ഞങ്ങൾ പ്രൊവൈഡേയ്യുന്നതായിരിക്കും പിന്നേ ആ ചേച്ചിയുടെ ഫാമിലിയിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും പറയണം ഇങ്ങനെ ഒരു നന്നായിട്ട് ചെയ്തുകൊടുക്കുന്ന ഇങ്ങനെ ഒരു പാർലർ ഉണ്ടെന്നും അവിടെ വരണമെന്നും എല്ലാം പറഞ്ഞ് ചേച്ചി അവരെ ഇവിടെ കൊണ്ടുവരാനായിട്ടു ശ്രമിക്കണം തീർച്ചയായും ഞങ്ങള് എല്ലാത്തരം വർക്കുകള് ചെയ്തു കൊടുക്കുന്നതാണ് അത് ബ്രൈഡൽ ആയാലും ഏതായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ചേച്ചി ഇതില് വിളിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനൊരു ബ്രൈഡൽ മേക്കപ്പ് ഓഫറെയ്തത് അത് എന്നത്തേണെക്കാന്നും കൂടി ഒന്നു പറഞ്ഞാൽ ഞങ്ങള്ക്കു കുറച്ചുകൂടെ സൗകര്യമായിരിക്കും

എല്ലാ എല്ലാ പാർലറിലും വെച്ചും ഞങ്ങളുടെ ഇവിടെയാണ് ഏറ്റവും റേറ്റ് കുറവ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നല്ല നന്നായിട്ട് ചെയ്തു കൊടുക്കും കസ്റ്റമർ പറയുന്ന രീതിക്കും കസ്റ്റമറിന് ഇഷ്ടപ്പെടുന്ന രീതിക്കുമായിരിക്കും ഞങ്ങള് ചെയ്തുകൊടുക്കുന്നത് ആ ശരി മേഡം മേഡം എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങളെ ഒന്നു വിളിച്ചാല് മതിയായിരിക്കും ഞങ്ങളുടെ സർവീസെപ്പോഴും അവൈലബിളായിരിക്കും അപ്പോള് ഫീഡ്ബാക്ക് തന്നത് താങ്ക്യൂ അപ്പോള് ശരി ഓക്കെ